ഹലോ സാറിത് ട്രാവൽ എജന്സിയല്ലെ ഞങ്ങള് ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇടുക്കിയിൽ നിന്ന് ആലപ്പുഴ വരെ ഒര് ടൂറ് പോകാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം ഞങ്ങള് അത് ഏര്ളി ബുക്കിംഗ് ചെയ്തായിരുന്നു അപ്പം ഞങ്ങള് കുറെ നേരമായി വെയ്റ്റ് ചെയ്യുന്നു ഇത് വരെ ക്യാബ് ഞങ്ങള് എടുക്കല് വന്നിട്ടില്ല ഞങ്ങള് കുറെ നേരം വെയ്റ്റ് ചെയ്തിട്ട് ആ ഡ്രൈവറിൻ്റെ തന്നിരുന്ന നമ്പറിലേയ്ക്ക് ഞങ്ങള് വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി കോൾ ഇതുവരെ അറ്റെന്ഡ് ചെയ്തിട്ടില്ല ഞങ്ങളൊര് മൂന്ന് നാല് തവണ വിളിക്കാന് ശ്രമിച്ചു പക്ഷേ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഇപ്പം അത് കുറെ മോർണിങ്ങിലായിരുന്നു ഞങ്ങൾക്ക് ഇവിടുന്ന് തിരിക്കണ്ടത് ഇപ്പം കുറെ സമയമായി ഞങ്ങള് വെയ്റ്റ് ചെയ്യുന്നു സര് അപ്പം എന്തെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ട് പറയാവോ അല്ലെങ്കിലേതെങ്കിലും പുള്ളിക്കെതെങ്കിലും ഓള്ട്ട്രണേറ്റീവ് നമ്പേർസ് ഉണ്ടെങ്കിൽ അത് തന്നാലും മതി ഞാന് കോണ്ടാക്റ്റ് ചെയ്തോളം ഞങ്ങൾ എന്ത് കൊണ്ടാണ് ലഭ്യ ആകാത്തത് എന്നോ അല്ലെങ്കില് വല്ല ട്രാഫിക്കിലോ അല്ലെങ്കിലെന്തെങ്കിലും വരാത്തതാണോ എന്നൊന്നന്വേഷിച്ചിട്ടൊന്ന് പറയാന് പറ്റുമോ സര് ഞങ്ങള് രാവിലെ മുതല് വേയ്റ്റ് ചെയ്യുന്നതാണ് അപ്പം കുറെ നേരമായി കണ്ടില്ലാത്തത് കൊണ്ട് ഞങ്ങള് വിളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഫോണിലോ അവേയ്ലബിളായിരുന്നില്ല ഒന്ന് വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ അത് വലിയ ഉപകാരമായിരുന്നു സാര് ഓക്കെ താങ്ക്യൂ സര്